കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം നൽകുന്നതില് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന കുടുംബങ്ങളെ സഹായിക്കാൻ ഒരുപാട് മാർഗ്ഗങ്ങള് ഇന്നീ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഇവിടെ നടത്തിക്കൊണ്ടു വരുന്നുണ്ട് പ്രധാനപ്പെട്ട ഒന്നാണ് അവരുടെ കുടുംബങ്ങള്ക്ക് ധനസഹായം അതുപോലെ പൊതു വിദ്യാഭ്യാസ പദ്ധതികളുടെ ഭാഗമാക്കൽ സ്കൂൾ കിറ്റ് വിതരണം ഉച്ചഭക്ഷണ പദ്ധതി അതുപോലെ മാതാപിതാക്കൾക്ക് ബോധവല്ക്കരണം തുടങ്ങിയ ഒരുപാട് മാർഗ്ഗങ്ങൾ മുഖേന ഇന്ന് ഈയൊരുകാലത്ത് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഈയൊരു വിദ്യാർത്ഥികൾക്ക് കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം നൽകുന്നതിൽ അതിൻറ്റേതായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ടെന്നതാണ് യാഥാർഥ്യമെന്നുള്ളത് പ്രധാനമായിട്ടും അവർക്കുള്ള മാതാപിതാക്കൾക്കുള്ള സാമ്പത്തികമായിട്ടുള്ള സഹായം കൊടുക്കുക അവർക്കെന്താണ് ഫ്രീ ആയിട്ടുള്ള സൗജന്യമായിട്ടുള്ള സ്കോളർഷിപ്പ് കൊടുക്കുക അതുപോലെ അവർക്കുള്ള സൗജന്യമായിട്ടുള്ള യൂണിഫോംസ് പുസ്തകങ്ങൾ അതുപോലെ സ്കൂളിൽ അടയ്ക്കാനുള്ള സ്കൂൾ ഫീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ സൗജന്യമായിട്ട് കൊടുത്തിട്ട് അവർക്ക് അവര്ക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു സഹായം നൽകുകയെന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്യാൻ നമുക്ക് ഒരു സർക്കാരിന് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു സൊസൈറ്റിക്ക് ഒരു സമുദായത്തിന് ചെയ്യാൻ സാധിക്കുന്നതെന്നുള്ളതാണ് പിന്നെയെന്നുള്ളത് ഈ ജനങ്ങളെ ബോധവല്കരിക്കുകയെന്നുള്ളതാണ് അതായത് ഈയൊരു പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഈയൊരു സമുദായത്തെ ബോധവൽകരിക്കുകയെന്നുള്ളത് അങ്ങനെ അതിനോടനുബന്ധിച്ചിട്ടുള്ള ക്യാമ്പെയിനുകൾ നടത്തുകയെന്നുള്ളത് എല്ലാവരുടേതുമായ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ എല്ലാ വിദ്യാർത്ഥികളും ഇങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടുകള് നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാ വിദ്യാര്ത്ഥികള്ക്കും അവരുടെ സ്കൂളികളില് ഉച്ചഭക്ഷണം ഫ്രീ ആയിട്ടുള്ള സൗജന്യമായിട്ടുള്ള ഉച്ചഭക്ഷണം കൊടുക്കുക തുടങ്ങിയ പദ്ധതികളൊക്കെ ഉറപ്പവരുത്തി ഒരു ഒരു വിദ്യാലയത്തില് ഒരു ഉച്ചഭക്ഷണം എന്നുള്ള നിലയ്ക്ക് എല്ലാവർക്കും സൗജന്യമായിട്ട് കൊടുക്കുന്ന രീതിയിലുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക അതുപോലെ മറ്റ് കഴിയുമെങ്കില് അവര്ക്ക് അവരുടെ വീടുവരെ എത്തുന്നതിനുള്ള അവരുടെ യാത്രാചെലവുകൾ തുടങ്ങിയ കാര്യങ്ങള് അതൊക്കെ സൗജന്യമായിട്ടുള്ള യാത്രാചെലവുകൾ അതുപോലെ കുട്ടികൾക്കുള്ള മറ്റ് ആവശ്യമായിട്ടുള്ള മറ്റ് എല്ലാ മാർഗ്ഗങ്ങളും അതായത് അവർക്ക് കുട്ടികൾക്കൊരു ഈവനിങ് ക്ലാസ് വൈകുന്നേരമുള്ള ക്ലാസുകള് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർക്ക് എന്താണ് ഉറപ്പായിരിക്കും അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട എല്ലാ അവരുടെ രക്ഷിതാക്കള്ക്കും മാതാപിതാക്കള്ക്കും പൂർണ്ണമായിട്ടുള്ള പിന്തുണ അതായത് അവർക്കുള്ള എങ്ങനെയൊക്കെ അവരുടെ അവര്ക്കുള്ള അവസരങ്ങള് അവർക്ക് അതായത് കുട്ടികളെക്കൊണ്ട് വേലയെടുക്കുന്ന അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിനുള്ള അതുകൊണ്ടുള്ള ഉപകാരങ്ങൾ അവർക്ക് എന്താണ് ബോധവൽക്കരണം കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്